ഹലോ ഡെൻസ്ക്വേയർ ഹോസ്പിറ്റലഅല്ലേ ആശ ഡോക്ടർ ആണോ സംസാരിക്കുന്നത് ആ ഡോക്ടറെ ഞാൻ കഴിഞ്ഞ ആഴ്ച അതാത് വ്യാഴാഴ്ച വന്നെൻ്റെ പല്ലൊന്ന് റൂട്ട് കനാല് ചെയ്തതാതായിരുന്നു ആ അന്നേരം അതുകഴിഞ്ഞ് ഇപ്പോൾ ഒരാഴ്ച ആയി ഇപ്പോൾ നിലവിൽ റൂട്ട് കനാല് ചെയ്ത പല്ലിന് കൊഴപ്പവൊന്നുവില്ല അന്നേരം അന്ന് ഞാൻ വന്നപ്പം പല്ലെടുക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു ആ അന്ന് ഡോക്ടറ് അപ്പോൾ ഒരാഴ്ച കയിയുമ്പോൾ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യാനാ പറഞ്ഞത് അതാ ഇപ്പം ഞാൻ വിളിച്ചത് പല്ലിന് കേടുണ്ട് ഡോക്ടറെ പല്ലിന് കേടും ഉണ്ട് ഇടക്ക് നല്ല വേദനയൊണ്ട് പിന്നെ കുറച്ച് അടന്നുപോയിട്ടുണ്ട് പല്ലെ ഒരു കുറച്ചെ ഇരുപ്പുള്ള്ന്ന് തോന്നുന്നു അന്നേരം അത് ബാക്കി കുറ്റിയായിട്ടാണ് നിക്കുന്നെന്നാ തോന്നുന്നത് അന്നേരം ഡോക്ടറ് ഇത് കഴിയുമ്പത്തേന് വിളിക്ക് എങ്ങനാന്ന് എടുക്കുന്ന കാര്യം അന്നേരം പറയാന്ന് പറഞ്ഞായിരുന്നു അതാ വിളിച്ചത് ആ രണ്ടു മൂന്ന് പല്ലിന് കേടുണ്ട് ആ ആ ആ ആ ആ ആ ആ അന്നേരം ഡോ ആ അന്നേരം ഡോക്ടറെ ഈ ഇപ്പോൾ റൂട്ട് കനാല് ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ അങ്ങനെ എടുക്കുന്നകൊണ്ട് എന്തേലും കൊഴപ്പമുണ്ടോ ആ പഴുപ്പ് ഉണ്ടോന്ന് അറിയത്തില്ല വേദനയുണ്ട് നല്ല അന്നേരം പഴുപ്പുള്ള സമയത്ത് പല്ലെടുക്കാൻ പറ്റോ അത് കഴിച്ചായിരുന്നു അത് ആൻറ്റി ആ ബ്രഷ് ബ്രഷ് ചെയ്യുന്ന സമയത്തൊക്കെ ചോര വരുന്നുണ്ടെ പിന്നെ ഇടക്ക് വേദനേം ഉണ്ട് നല്ലപോലെ ആ ഉണ്ട് ഉണ്ട് ആ ശരി ഡോക്ടറെ ആ ആ അപ്പോൾ എന്ന് എന്ന് വന്നാൽ ഡോക്ടറെ കാണാൻ പറ്റും അതെല്ലെ ആ ആ ആ ശരി ഡോക്ടറെ അങ്ങനെ ആണെൽ അന്നേരം എന്തേലും ആ ഈ ഭക്ഷണം വല്ലോം കഴിക്കാൻ പാടില്ലാത്തത് വല്ലോം ഉണ്ടോ വരുന്നിടം വരെ ആ ആ

ആ ആ ആ ആ

ഷുഗറൊന്നുവില്ല ഷുഗറും കൊളസ്റ്റ്റോൾ അങ്ങനെ ഉള്ള സംഭവങ്ങളൊന്നുവില്ല പിന്നി വേദന നിക്കുമ്പോൾ ഈ പഴുപ്പുണ്ടോന്നുള്ളതെ അറിയത്തില്ലാത്തതൊള്ളൂ അതിപ്പം റൂട്ട് കനാല് ചെയ്തപ്പോൾ ആൻറ്റിബയോട്ടിക് തന്നത് കഴിച്ചതുകൊണ്ട് ചിലപ്പം പഴുപ്പ് കാണുകേലായിരിക്കും അല്ലേ ആ ശരി ഇല്ല ഇല്ല അല്ലാതെ കുഴപ്പം വേറെ കൊഴപ്പമൊന്നുവില്ല ആ ശരി ആ ആ ഈ ഇങ്ങനെ പല്ലിന് വേദന നിക്കുന്നോണ്ടായിരിക്കും അല്ലേൽ ചില സമയത്ത് തല നല്ല തലവേദന ഉണ്ട് ഇല്ല കുഴപ്പോന്നുമില്ലാരുന്ന് കഴിച്ചിട്ട് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു ആ ആ ആ ആ ശരിയാണ് ആ ആ ആ എന്നാൽ ശരി ഡോക്ടറെ ആ ശരിയെന്നാൽ ആ